നമുക്ക് ഈ മാനന്തവാടി ആശുപത്രിയിൽ ലഭ്യമാകുന്ന കാര്യങ്ങൾ എന്നു വച്ചാൽ നമ്മൾ മെഡിസിനൊന്നും പൈസ കൊടുക്കേണ്ട അതേപോലെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നതിനെക്കാട്ടിയും നല്ലതാണ് മാനന്തവാടി പോകുന്നത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരെ ചികിത്സിക്കുകയും എക്സറേക്ക് മാത്രമാണ് പൈസയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഗവർമെൻ്റ് ആശുപത്രിയിൽ പിന്നെ ആശുപത്രി കുറച്ചുംകൂടി മെച്ചമായി ഇപ്പോൾ മെഡിക്കല് കോളേജ് എന്നുള്ള പേരും വന്നു ഇപ്പോൾ കുറേ ഇപ്പം പിന്നെയും ബിൽഡിങ്ങുകൾ ഒക്കെ കെട്ടി തുടങ്ങുന്നുണ്ട് അത്പോലെതന്നെ അവിടെ നമ്മൾ രാത്രി എപ്പോൾ പോയാലും ഡോക്ടർമാർ ഒന്നിലധികം ഡോക്ടർമാർ ആയിരിക്കും അതേപോലെ അല്ല പ്രൈവറ്റിൽ പ്രൈവറ്റിൽ പൈസയും ആവും അതിനു പൈസ പോലും നമുക്ക് വേണ്ട ഈ മാനന്തവാടി ചില സർജറിക്കാണ് പൈസ ഒക്കെ കൂടുക അങ്ങന അങ്ങനയെ ഉള്ളൂ പിന്നെ അതേപോലെ ചിലവെന്നു വച്ചു കഴിഞ്ഞാൽ അത്ര വലിയ ചിലവൊന്നും ഇല്ല നമുക്ക് ചിലപ്പം മരുന്ന് വാങ്ങാൻ പുറത്തു നിന്ന് എഴുതിത്തരുന്ന മരുന്നെ അതേപോലെ എക്സറേയൊക്കെ ചിലപ്പോൾ അവിടെ എടുക്കാൻ പറ്റാത്തയൊക്കെ പുറത്ത് പോയി എടുക്കുന്നതിനൊക്കെയാണ് ചിലവ് വരുന്നത് ആകെ പിന്നെ വരുന്നത് കാർഡ് ഇല്ലാത്തവർ എൽ പി എൽ കാർഡ് ഉള്ളവർക്കൊക്കെയാണ് ചിലവ് വരുന്നത് അത് എക്സ്റേ ബ്ലഡ് ചെക്കിംഗിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലവ് വരുന്നുള്ളൂ വേറെയൊന്നും ഒരു ചിലവ് വരുന്നില്ല പിന്നെ കോവിഡ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഗവർമെൻ്റ് ആശുപത്രിക്കാർ കുറേ പേരെ ആ ആംബുലൻസിൽ വന്നിട്ട് കൂട്ടികൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഓരോരുത്തർക്ക് ഓരോ ആംബുലൻസ് വീതമാണ് വന്നിരുന്നത് അതുപോലെ നല്ല സംരക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത് എപ്പോൾ നോക്കിയാലും നമ്മളെ ചോദിക്കുമായിരുന്നു എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ വാക്സിൻ്റെ കാര്യങ്ങളും എല്ലാം പറയാമായിരുന്നു അതുപോലെതന്നെ നമ്മുടെ ഏരിയയിൽ ആവിശ്യം കൂടുതലെന്ന് വച്ചാൽ എല്ലാവരും കൂടി ഒത്തൊരുമയോടെ നിൽക്കുക സ്ഥലങ്ങൾ വൃത്തിയാക്കുക അങ്ങനെയൊന്നുകൂടി ചെയ്യുന്നില്ല അതാണ് നമുക്കിപ്പോൾ ആവിശ്യമായിട്ടുള്ളത് എന്നാണ് ഞാൻ പറയുന്നത്